അപ്പം ഈ ടോപ്പിനെ കുറിച്ചു പ്രധാനമായിട്ട് പറയാനുള്ളതെന്നു വച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഞാൻ താമസിക്കുന്നത് ആണെങ്കിൽ അതായത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഒരു മലയോര പ്രദേശത്താണ് താമസിക്കുന്നത് അപ്പം കാലാവസ്ഥ എന്നു പറയുന്നത് നല്ല രീതിയിലുള്ള മഴ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിലായിട്ട് ലഭിച്ചാലാണ് നമ്മുടെ ഇതിൽ നിന്ന് നല്ല രീതിയിൽ നമുക്ക് ബാധിക്കാനും അത് ബാധിക്കുന്നത് അല്ല നല്ല രീതിയിൽ അതിൻ്റെ വളർച്ച ചെയ്യാൻ സഹായിക്കത്തുള്ളൂ അപ്പം അതിൻ്റെ ഉള്ളിൽ വിളകൾ എന്നുവച്ചിട്ടുണ്ടെകിൽ ആ ഭാഗത്ത് മെയിനായിട്ട് ഉള്ളത് റബ്ബറാണ് റബ്ബർ എന്നു വച്ചാൽ മലയോര കർഷകരാണ് മെയിനായിട്ട് ഉള്ളത് റബ്ബർ റബ്ബറെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഈ കാലാവസ്ഥയുടെ വ്യതിയാനം കാരണം റബ്ബർ റബ്ബറിൻ്റെ ഇലകൾ നല്ല രീതിയിൽ പൂക്കാതെയും അപ്പം അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഏതെങ്കിലും സമയത്ത് ഉണ്ടാവാറുണ്ട് അപ്പം ഈ റബ്ബർ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ആ പ്രദേശത്ത് ഉള്ളത് അപ്പം ഈ ഒരു കാലാവസ്ഥയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല വെയിൽ അല്ലെങ്കിൽ തണുപ്പ് ആ സാധനങ്ങളാണ് ഈ റബ്ബറെന്ന ഇതിൻ്റെ കൃഷിക്കായിട്ട് മെയിനായിട്ട് വേണ്ടത് അപ്പം ഈ ഒരു രീതിയിൽ വച്ചു നോക്കുവാണെങ്കിൽ റബ്ബർ കൃഷി ചെയ്യുന്നവർക്ക് എന്നു വച്ചാൽ വലിയ രീതിയിലുള്ള ലാഭമൊന്നും അവർക്ക് ഈ റബ്ബറിനൊന്നും ലഭിക്കുന്നില്ല കാരണം അത് കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളാണ് അപ്പം റബ്ബർ വെട്ടുന്നതിന് നുമ്പ് നല്ല രീതിയിൽ ഇലകൾ പൂവിടണം നല്ല രീതിയിൽ ഇലകൾ പൂവിട്ടാലേ അത് നല്ല പോലെ പ്ലാസ്റ്റികൊക്കെ ഒട്ടിച്ചു നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നല്ല കാലാവസ്ഥ ഉണ്ടെങ്കിലേ അങ്ങനെയുള്ള ഇപ്പ റബ്ബർ കാണുന്ന ഇടത്ത് മെയിനായിട്ടുള്ളത് എന്നു പറയുന്നത് അപ്പം അപ്പം ഈ ഇതിൻ്റെ കാര്യത്തിൽ കാലാവസ്ഥ കാര്യത്തിൽ നല്ല രീതിയിലുള്ള കാലാവസ്ഥകൾ ലഭിച്ചാൽ മാത്രം നമുക്ക് ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഇത് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് പിന്നെ ഈ റബ്ബർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാലാവസ്ഥയുടെ ഇത് കാരണം ചില ഈ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമ്മൾ പല ഈ ഓഫീസിൽ കൃഷി ഭവന് പിടിസി അങ്ങനെയുള്ള ഓഫീസുകളിൽ നിന്നുള്ള ജൈവ വളങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പം റബ്ബറിനൊക്കെ ആണെങ്കിൽ നമ്മൾ തുരിശടിക്കുക എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ജൈവ വളങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണേൽപ്പോലും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം കിട്ടുന്നുണ്ടെങ്കിലും നമ്മള് ചില സമയത്ത് അത് പണം കൊടുത്തു വാങ്ങിക്കേണ്ട അവസ്ഥകളൊക്കെ വരുന്നുണ്ട് എന്നാൽപ്പോലും അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വിളകളുടെ അതായത് ഇതിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പം സർക്കാരിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല അപ്പം അതൊക്കെയാണ് മെയിനായിട്ടുള്ളത് ഞാൻ പറയുന്നത് അപ്പം അതുപോലെ തന്നെ മെയിനായിട്ട് ഒരു വിള അവിടെ ഇത് ഉള്ളതാണ് കപ്പ ഇത് കപ്പ കപ്പ എന്നു പറയുന്നത് കപ്പ എന്ന് വച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് മെയിനായിട്ട് കൃഷി ചെയ്യുന്ന് കാര്യാമാണ് കപ്പ അപ്പം ഈ വന്യ മൃഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ശല്യം കാരണം അത് നല്ല രീതിക്ക് പറ്റുന്നില്ല അപ്പ ഇതിന് വേണ്ടിയുള്ള കാലാവസ്ഥ നല്ല കപ്പ എന്ന് ഇത് കൃഷി ചെയ്യാനായിട്ട് അത്യാശ്യം നല്ല രീതിയിലുള്ള കാലാവസ്ഥ മതി നമുക്ക് അപ്പം അവിടെ നിന്ന് വച്ചിട്ടുണ്ടങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കാലാവസ്ഥ നമുക്ക് നല്ല രീതിയിലൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട് പിന്നെ വന്യ മൃഗങ്ങളുടെ ഒരു ശല്യമാണ് നമ്മൾക്ക് മെയിനായിട്ട് ഒരു പ്രശ്നമായിട്ട് നമ്മൾക്ക് തോന്നും അപ്പം നല്ല രീതിയിലുള്ള ഇതിൽ ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പം ഇല്ല അപ്പം ഇതിനെ സംരക്ഷിക്കാനായിട്ട് വരുന്ന വന്യ മൃഗങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അപ്പം ഇങ്ങനെ കൃഷി ചെയ്തു നല്ല രീതിയിൽ വിറ്റു നല്ല രീതിയിൽ സാമ്പത്തികങ്ങൾ കാര്യങ്ങളൊക്കെ മുന്നോട്ടു വയ്ക്കുക അതിനൊക്കെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ട് അപ്പം അവയെ സംരക്ഷിക്കാനായിട്ട് ഈ മൃഗങ്ങളുടെ ശല്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലാതെ വിളകൾ സംരക്ഷിക്കാനായിട്ട് അങ്ങനെ വേറെ ആയിട്ട് വലിയ കാര്യങ്ങൾക്കൊന്നും നമ്മള് ചെയ്യുന്നില്ല അപ്പം അതാണ് മെയിൻ ആയിട്ട് നമ്മൾക്ക് വേണ്ട ഒരു കാര്യം കപ്പ എന്ന സാധനം കൃഷി ചെയ്യുന്നതിന് അത്യാവശ്യം കാലാവസ്ഥ വ്യതിയാനം നമ്മൾ പ്രധാനമായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഉള്ള ഇതാണ് ഏലം ഏലം എന്ന് പറയുന്ന മലയോര ഭാഗങ്ങളിലെ കട്ടപ്പന സൈഡിലോട്ടൊക്കെ ഒത്തിരി ഉണ്ട് പക്ഷെ എൻ്റെ നാട്ടിൻ്റെ അവിടെയുള്ള ഏലം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പാടാണ് കാരണം എന്ന് വച്ചാൽ അവിടുത്തെ കാലാവസ്ഥ ഏലം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ചൂടും തണുപ്പും വേണ്ട സ്ഥലങ്ങളെയാണ് ഏലം എന്ന സാധനം കൃഷി ചെയ്യാൻ പറ്റുന്നത് പഷേ ആ ഒരു ഭാഗത്തായിട്ടുള്ളത് മെയിനായിട്ട് കാറ്റ് അങ്ങനെയുള്ള കാറ്റും ചൂടും ആണ് അതായത് ഏലം എന്നൊരു കൃഷി ചെയ്യേണ്ടതിന് കാരണം ഏലം എന്ന കാര്യം കൃഷി ചെയ്യേണ്ടതിന് കുറഞ്ഞത് നല്ല രീതിയിലുള്ള ചെലവുകളുണ്ട് അപ്പം നല്ല രീതിയിലുള്ള ചെലവുകൾ ഉള്ളതുകൊണ്ടു തന്നെ കൃഷി ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദി അത് കൃഷിക്കാരെ സംബന്ധിച്ചു കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി പാടായിട്ടുള്ള കാര്യമാണ് അപ്പം അതിനകത്ത് നിന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല തണൽ അങ്ങനെയുള്ള കാര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കാവുന്നതാണ് അപ്പം ഈ ഒരു ഭാഗങ്ങളിൽ ഇപ്പ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വില അനുസരിച്ചു ഏലം എന്നു പറയുന്നത് ഒത്തിരിയേറെ മൂല്യമുള്ളത് എന്നാൽ വിലയേറിയതായ ഒരു വിളയാണ് ഏലം എന്നു പറയുന്നത് അപ്പം ഈ ഹൈറേഞ്ച് കട്ടപ്പന ആ ഒരു ഭാഗത്തോട്ടാണ് മെയിനായിട്ട് ഏലക്ക ഏലത്തോട്ടങ്ങൾ ഉള്ളത് അപ്പം ആ ഒരു ഭാഗത്തേക്ക് ഏലം നട്ടു പിടിപ്പിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നു പറയുന്നത് ഈ കാലാവസ്ഥയും ഇതൊക്കെ തന്നെയാണ് അപ്പം ഏലത്തിൻ്റെ കാലാവസ്ഥ നമ്മുടെ ആ ഭാഗങ്ങളിലേക്ക് പിടിക്കാത്തത് കാരണം നല്ല ചൂടും വേണം തണലും വേണം അതുപോലെ തന്നെ ഇത് പരിപാലിച്ചു പോകുന്ന പരിപാലിച്ചു കൊണ്ടു പോകുന്നു വച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫണ്ട് അതായത് നല്ല രീതിയിൽ ചിലവുള്ള കാര്യങ്ങളാണ് അപ്പം അതൊക്കെയാണ് മെയിനായിട്ട് അതിനകത്ത് വരുന്നത് അപ്പം ഏലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടു പോകാൻ ആണെന്നുണ്ടെങ്കിൽ നല്ല ചിലവുള്ള കാര്യമാണ് അപ്പം അതിനായിട്ട് നടപടികൾ സ്വീകരിക്കുക എന്നൊക്കെ വച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് അത് നല്ല പറ്റിയ നമ്മുടെ പ്രദേശത്തേക്ക് പറ്റിയ ഒരു വിളവല്ല അതിന് കാരണം ഒത്തിരിയേറെ ആൾക്ക് അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് പോസിബിൾ അല്ലാത്തതു കൊണ്ട് പിന്നെ അതിലേക്ക് വലുതായിട്ട് പോകുന്നില്ല അതുപോലെ തന്നെ വേറെയുമുണ്ട് കൂടി അതായത് കുരുമുളക് കാപ്പി കുരുമുളക് എന്ന കാര്യങ്ങൾ കാപ്പി കുരുമുളക് ഇത് ഏതെങ്കിലും വച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവിടെ ഈ പറഞ്ഞ കണക്ക് കാലാവസ്ഥ അതിനെ വല്യ രീതിയിൽ എഫ്ക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത അപ്പം കാപ്പി കുരുവാണ് ഇപ്പം ഒരു ഇവിടെ കാപ്പി പൊടി പൊടിക്കുന്ന മില്ലുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പ്രദേശത്തൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് അത് വലിയ കാര്യമായിട്ട് നമ്മളെ അഫക്ട് ചെയ്യുന്നില്ല എന്നാണ് വിചാരിക്കുന്നത് കാരണം കാപ്പിക്കുരു ഇപ്പം ആണെങ്കിൽ പോലും ഇങ്ങനെ വളർത്തുന്നത് കൊണ്ട് തന്നെ മിക്ക സ്ഥലങ്ങളിലും ഇത് വളരും കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ അങ്ങനെ വലിയ കാര്യമായിട്ട് അതിനെ അഫക്ട് ചെയ്യില്ല അപ്പം വിളകളെ ഇതിനെയൊക്കെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ പല മരുന്നുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു കാരണം ഇങ്ങനെയുള്ള ഇതൊക്കെ ചിലപ്പം ഇങ്ങനെ കീടാണുക്കൾ അങ്ങനെ എന്താണ് പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മുടെ വിളകൾക്ക് സംഭവിക്കാനുള്ള സാധ്യത ഉള്ളപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ വലിയ സീൻ ആയിട്ട് വരാനായിട്ട് ഇല്ല ഇതിൻ്റെ കാര്യത്തിലൊക്കെ അതുപോലെ തന്നെ പണ്ട് കൊടി കൊടി എന്നു വച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സമ്പാദിക്കാനായിട്ട് പറ്റിയ ഒരു വിളയാണ് ആ ഭാഗങ്ങൾ ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ കൊടി കൃഷി ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട് കാരണമെന്നു വച്ചാൽ കുഴി ഇട്ടിട്ടുണ്ട് തണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആരെങ്കിലും നല്ല രീതിയിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കൊടി കൃഷി എന്ന് പറയുന്നത് അപ്പം അതുപോലെ തന്നെ പ്രധാനമായിട്ടും കൊടി കൃഷിയുടെ ഇമ്പോർട്ടൻസ് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ കുറച്ചു മരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പം അപ്പം ഈ കാലാവസ്ഥയുടെ ചില ഇത് കാരണം കൊടി നല്ല രീതിയിൽ കായിക്കാത്തത് ഇപ്പം ചിലപ്പം പ്രകാശം സൂര്യപ്രകാശത്തിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ വെള്ളത്തിൻ്റെ ഇത് ലഭ്യത അതൊക്കെ ഉണ്ടെങ്കിൽ സൂര്യപ്രകാശം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാറില്ലാത്തപ്പോൾ അതിനായിട്ട് നടപടികളായിട്ടും നടപടികളായിട്ട് ഒന്നും നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പ്രധാനായിട്ട് കഴിയില്ല കാരണം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇത് ചെയ്യുന്നത് കൊണ്ട് നടപടികൾക്ക് അല്ല അവിടെ പ്രാധാന്യം കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങളാണ് അപ്പം നല്ല കാലാവസ്ഥയാണ് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത് അപ്പം അതല്ല നമ്മൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് അപ്പം നല്ല രീതിയിൽ അത് ചെയ്യാനായിട്ട് നമ്മൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ സാധിക്കുന്നുണ്ടെങ്കിൽ നല്ല സെറ്റപ്പായിട്ട് അത് നല്ല രീതിയിൽ പറ്റുന്ന എന്നാണ് കരുതുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് അപ്പം ഈ വിളകളെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ സംരക്ഷണമെന്ന രീതിയിൽ നല്ല രീതി കുറ്റമറ്റ അറിയത്തില്ല പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് പറയുകയാണെങ്കിൽ കാലാവസ്ഥ തന്നെയാണ് കാലാവസ്ഥ ഡിപ്പെൻഡ് ചെയ്തത് കാലാവസ്ഥ നമ്മുടെ ഏത് സ്ഥലത്ത് ഏത് കാലാവസ്ഥയാണ് നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കി അത് അനനുസരിച്ചു കാലാവസ്ഥ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് അനുസരിച്ചു നമ്മൾ വിളകളൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മുടെ നമ്മുടെ ഇതിനുവേണ്ടി പറ്റുന്ന രീതിയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വിളകളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ അതാണ് കുറച്ചു കൂടെ നല്ലത് എന്ന് ഞാൻ മനസിലാക്കുന്നു അതായിരിക്കും എൻ്റെ അത് മലയോര പ്രദേശങ്ങളിൽ നമുക്ക് കൊടുക്കാവുന്ന എല്ലാ വിളകളും എല്ലായിടത്തും നല്ല രീതിയിൽ കായിക്കണമെന്നോ പ്രശോഭിക്കണമെന്നോ ഇല്ലാതെ മനസിലാക്കി നമ്മൾ ചെയ്യുന്നതിനെയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ നല്ലതെന്നു ഞാൻ കരുതുന്നു